ഇപ്പോൾ വീട്ടിലെ അതിഥികളൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളവരോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമായിരിക്കും അവരെ സൽക്കരിക്കുന്നതും സ്വീകരിക്കുന്നതും അപ്പോൾ അവർക്കിഷ്ട്ടമുള്ളതാവട്ടെ ഞങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതാക്കട്ടെ അതായിരിക്കും ഞങ്ങളവർക്കുവേണ്ടി പാചകം ചെയ്യുന്നത് വളരെ മനോഹരമായും വൃത്തിയോടെയും ആയിരിക്കും ഞങ്ങളവർക്ക് പാചകം ചെയ്യുന്നത് ഇപ്പം അതിഥികളൊക്കെ വരവേൽക്കാൻ ഞങ്ങൾ വീടുകളൊക്കെ ഭയങ്കര നീറ്റിലാണെങ്കിലും ഇപ്പം പുറമെ എന്തെങ്കിലും ഫങ്ങ്ഷനോ പരിപാടിക്കോ അതിഥികളെ വരവേൽക്കുകയാണെങ്കിൽ ഭയങ്കര നീറ്റ് ആയിട്ടും നല്ല വൃത്തിയോടെയും നല്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമൊക്കെത്തന്നെയാണ് ഞങ്ങളവരെ വരവേൽക്കുന്നത് മാത്രമല്ല ഭക്ഷണങ്ങളാണെങ്കിലും വെറൈറ്റി ഭക്ഷണങ്ങളും അവർക്ക് വേണ്ടാത്തക്ക രീതിയലെ നല്ല ഭക്ഷണങ്ങളും ഡ്രിങ്ക്സ് ആണെങ്കിലും എന്തെങ്കിലും കോൾഡ് ഐറ്റംസ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ നല്ല വെറൈറ്റി ആണെങ്കിൽ വെറൈറ്റി രീതിയിലാണ് അവർക്ക് പാചകം ചെയ്യുന്നത് അവർക്കിഷ്ട്ടപ്പെട്ട രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങളവർക്ക് മിക്കതും എല്ലാ ഭക്ഷണവും അവർക്കിഷ്ട്ടപ്പെട്ട രീതിയിലായിരിക്കും പാചകം ചെയ്യുന്നത് അവർക്ക് വേണ്ടി സെർവ് ചെയ്യുന്നതും